മെയിൻ ആയിട്ടും വില്ലേജ് ഏരിയകളിൽ ജനങ്ങളെ വിഭവങ്ങളുടെ പോരായ്മ ബാധിക്കാറുണ്ട് ഇവിടെ ഹോസ്പിറ്റൽ ആശുപത്രി സൗകര്യങ്ങളും മരുന്നുകളുടെ ലഭ്യതയും വളരെയധികം കുറവാണ് കോവിഡിൻ്റെ സമയത്താണെങ്കിൽ പോലും വാക്സിനേഷൻസ് വാക്സിനേഷൻ സെൻ സെൻറേഴ്സ് വളരെ കുറവായിരുന്നു അത് അതിനാൽ തന്നെ ജനങ്ങൾക്ക് മണിക്കൂറുകളോളം പോയി വെയിറ്റ് ചെയ്ത് വാക്സിൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പ്രോഗ്രാം കമ്പ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവില്ല മതിയായ ആരോഗ്യ പ്രവർത്തകരുടെ കുറവും ഉണ്ടായിരുന്നു കുട്ടികളി കുട്ടികൾക്കാണെങ്കിൽ പോലും പല പല വാക്സിന്സ് ആണെങ്കിലും നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ വളരെ അധികം കുറവാണ് അതും കൂടുതലായിട്ടും പ്രൈവറ്റ് സെക്ടറുകളെ ആശ്രയിക്കേണ്ടി വരാറുണ്ട് എം എം ആർ വാക്സിന് പകരം ഇപ്പോൾ എം ആർ വാക്സിൻ ആണുള്ളത് അപ്പോൾ അത് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ ആയതുകൊണ്ട് ഇൻഫോം ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് പല കുട്ടികൾക്കും എല്ലാ കറക്റ്റ് ടൈമിൽ വാക്സിനേഷൻസ് എടുക്കാൻ പറ്റാതെ വരാറുണ്ട് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ വളരെയധികം ദൂരെയാണ് ജനങ്ങളുടെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാട്ടിലും ആ അതുകൊണ്ട് അവിടെ എത്തിപ്പെടാനുള്ള ഗതാഗത സൗകര്യങ്ങളും വളരെയധികം കുറവാണ് പ്രത്യേ ക്യാൻസർ പോലെയുള്ള മരുന്നുക ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ ലഭ്യത കുറവ് വളരെയധികം അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി കുറവാണ് അതുപോലെ ഡോക്ടറും രോഗികളും തമ്മിലുള്ള അനുപാതം നിരക്ക് വളരെയധികം കുറവാണ് മതിയായ ആരോഗ്യ പ്രവർത്തകരോ ഡോക്ടർസോ ഇല്ലാത്തതിനാൽ തന്നെ രോഗികൾക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ച് വേറെ ദൂരത്തേക്ക് ഒക്കെ സഞ്ചരിച്ച് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിൽ എത്തിച്ചേരേണ്ടതുണ്ട് അത് ചില അത്യാഹിത കണ്ടീഷനുകൾക്ക് അത് മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണമാകാറുണ്ട് ഈ ഹോസ്പിറ്റൽ ഡിലേ ആകുന്നതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകൾ ആണെങ്കിൽ പോലും ഗവൺമെൻറ് സെക്ടറിൽ മതിയായ അധികം മെഡിസിൻസ് ഇല്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഗവ് മെഡിക്കൽ ലാബുകൾ പ്രൈവറ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ടി വരാറുണ്ട് അവിടെയാണെങ്കിൽ മെഡിസിൻ വാങ്ങാൻ എക്സ്പെൻസീവ് ആണ് അത് ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് കിഡ്നി ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻറ്സിന് ആണെങ്കിൽ അതേപോലെ ഡയാലിസിസ് ഒക്കെ ചെയ്യാനാണെങ്കിലും ഇവിടെ മതിയായ ഫെസിലിറ്റികൾ കുറവാണ് വില്ലേജ് ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിന് കൂടുതലായിട്ടും സിറ്റികളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്